മാനസികാരോഗ്യത്തെക്കുറിച്ചും മൊത്തത്തിലുള്ള ക്ഷേമത്തിനെക്കുറിച്ചും ഇപ്പം അവബോധം സൃഷ്ടിക്കുന്നതിനിപ്പം ഞങ്ങളുടെ നാട്ടിൽ ഓൾറെഡി പബ്ലിക്ക് ലൈബ്രറിയിൽ നമ്മുടെ സ്ത്രീകൾക്കും പുരുഷനും കുട്ടികൾക്കുമായാലും യോഗാക്ലാസ്സുകളുണ്ട് പിന്നേ നമുക്ക് പിന്നെയല്ലാതെ പുരുഷന്മാർക്ക് ഇവിടെ വൈകിയിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇച്ചിരി മാനസികോന്മേഷത്തിന് ഇവിടെ ഫുട്ബോള് കളിയും ഫുട്ബോളുണ്ട് വോളീബോള് കളിയുണ്ട് പിന്നെ വൈകിയിട്ടായും നമ്മളെല്ലാവരും ഒരുമിച്ച് ലൈബ്രറിയിലായാലും ക്ലബിലായാലും ക്ലബിലൊക്കെ നമ്മൾ വൈകിയിട്ട് ക്യാരംസ്സും അങ്ങനത്തെ കുറെ കളികളായിട്ടൊക്കെ അവരവരുടെ മനസ്സ് ഓൾറെഡി അവരുടെയൊന്ന് ഫ്രഷായി മൈൻ്റൊന്ന് ഫ്രഷാകാൻ വേണ്ടി ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെയൊക്കെ ഇതിനൊക്കെ വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി കുറെ ആളുകളുണ്ട് അതിന് അതിന് ഇഷ്ടംപോലെ ആൾക്കാരത് സപ്പോർട്ടുമുണ്ട് ഭയങ്കരമായിട്ട് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ഈ ജോലി കഴിഞ്ഞിട്ട് വരുന്ന സ്ട്രെസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിനായിട്ട് മൈൻ്റ് ഫ്രഷാക്കാൻ വേണ്ടിയാണ് ഇതിനകത്ത് പ്രേത്യേകം ഇറങ്ങിത്തിരിക്കുന്നത് അതിനിപ്പം ഇവിടെ നിന്ന് കുറച്ച് കാലമായിട്ട് ഇവിടെ സ്ത്രീകൾക്കും കുട്ടികളും പുരുഷൻമാരും എല്ലാവരും എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് യോഗ ക്ലാസ്സ് ആ ക്ലാസ്സ് അറ്റന്റ് ചെയ്യുന്നുണ്ട് ഇവിടെ പിന്നെ ഫുട്ബോളാലായാലും ക്രിക്കറ്റായാലും അതിന് അതിന്റേതായ രീതിയിൽ അവരുടെ മൈൻ്റൊന്ന് ആ സമയത്ത് ആ സമയത്തായാലും പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പോവുമ്പോഴാണ് അവർക്കും കററ്റ് ജോലിഭാരം കൂടുന്നത് ഇതൊക്കെയാവുമ്പം യോഗ ക്ലാസ്സും ഈ സ്പോർട്സും അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അവർക്ക് മൈൻ്റ് ഫ്രഷായി ഇപ്പം എല്ലാ കാര്യത്തിലും അവർ ഇറങ്ങിത്തിരിക്കുന്നുമുണ്ട്